ഞങ്ങളുടെ പ്രദേശത്തെന്നു കാണാൻ പറ്റുന്ന പതിവായിട്ട് കാണപ്പെടുന്നതെന്നു പറഞ്ഞാൽ കാക്കകളെയും പൂമ്പാറ്റകളെയും തുമ്പികളെയും ഒക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ വല്ലപ്പോഴും കാണാവുന്നതാണ് വേഴാമ്പൽ അങ്ങനെയുള്ള മയിലുകൾ അങ്ങനെയുള്ള ഒരുപാടതിനെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയെന്നു പറഞ്ഞാൽ പക്ഷികളെ കാണാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പൂമ്പാറ്റകളെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് അവർ അവർ പല പല കളറിലുള്ളതും പല പല നിറത്തിലുള്ളതുമൊക്കെ പൂമ്പാറ്റകളെ കാണാൻ ഒരുപാട് നല്ല രസാണ് കാണാൻ അതുപോലെത്തന്നെ അവർ വന്ന് പൂവിൽ ഇരിക്കുന്നതും പൂവിൽ തേൻ കുടിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസാണ് അതൊക്കെ കാണാനാണ് എനിക്കു താത്പ്പര്യം ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പൂമ്പാറ്റയെയും പൂമ്പാറ്റയെയാണ് ഇഷ്ടം നമുക്ക് ഒരു പൂമ്പാറ്റയെ പിടിച്ച് കളിയ്ക്കാനൊക്കെ നമുക്കു തോന്നും അവർ അവരെ കാണുമ്പോൾ തന്നെ ആ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നണ്ടത് പൂമ്പാറ്റകളെ കാണാൻ ഒരു പ്രത്യേക രസമാണ് പല പല കളറിലുള്ള പൂമ്പാറ്റകളൊക്കെയുണ്ട് അതൊക്കെ കാണാൻ ഒരുപാട് നല്ല രസമാണ് നല്ല സന്തോഷമാണ്